ഹലോ ഗുഡ് മോർണിങ് അതെ സനിയ ടീച്ചർ അല്ലേ

കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ടീച്ചർ കേൾക്കുന്നില്ലേ ഓക്കെ പറഞ്ഞോളൂ

ഓക്കെ നമ്മൾ കുട്ടികളെക്കൊണ്ട് എന്തെങ്കിലും ഒക്കെ പ്രോഗ്രാം അല്ലേ അന്ന് ചെയ്യിക്കേണ്ടത് അപ്പം സാധാരണ നമ്മുടെ സ്കൂളിൽ നമ്മുടെ സ്ക്കൂളിൽ നിന്ന് ഒരു റാലി കാണും അപ്പം അതിന് നമ്മുടെ കുട്ടികൾ ആ കുട്ടികളെ പങ്കെടുപ്പിക്കണം പിന്നെ എന്തെങ്കിലും

അതെ അതെ ഓ അത് ഞാനും അത് തന്നെയാണ് ഉദ്ദേശിച്ചത് ഓക്കെ ചോദിക്കാം ഓ ശരി ഞാനും അതിൽ പങ്കെടുക്കാം നമുക്ക് എത്ര കുട്ടികൾ അതിന് വേണ്ടി വരും എന്നൊക്കെ നോക്കാം അവർക്ക് വേണ്ടുന്ന ഡ്രസ്സ് ഒക്കെ നമുക്ക് അറേഞ്ച് ചെയ്യേണ്ടി വരില്ലേ ഓക്കെ ആ ആ ഓക്കെ ആ ശരി ശരി എന്നാൽ ആ ആ ആ അത് അത് നല്ല അതെ അതെ അതെ അതെ അത് നമ്മുടെ ക്ലാസ് മാത്രം അല്ല നമുക്ക് സ്കൂൾ മൊത്തം ഉള്ള ക്ലാസ്സിലെ കുട്ടികളെ ഒക്കെ വെച്ച് ഓരോ സ്റ്റാൻഡേഡിലെ കുട്ടികളെ വെച്ചും നമുക്കത് നടത്താം അതാവുമ്പോൾ അതെ ഓക്കെ അപ്പോൾ നമുക്ക് അവർക്ക് ചെറിയൊരു സമ്മാനം ആയിട്ട് ആ അവർക്കൊരു ചെറിയ പ്രോത്സാഹന സമ്മാനം ആയിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ആരെയെങ്കിലും ഒക്കെയൊന്ന് സ്പോൺസേസിനെ കണ്ട് പിടിക്കുവോ ഒക്കെ ചെയ്ത് നമുക്ക് അതൊരു നല്ല ഒരു ഇത് നമുക്ക് ഇത്രയും ആയി ഇനിയും എന്താണ് നമുക്ക് വേറെ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ ടീച്ചേർസിൻ്റെ ഇടയിലും എന്തെങ്കിലും നടത്തിയിരുന്നാൽ നല്ലതായിരിക്കില്ലേ ഒരു സ്വാതന്ത്ര്യ ഇല്ല ഒരു പ്രസംഗ മത്സരം നടത്തി എന്നാലും

ആ ആ പിന്നെ

പിന്നെ പിന്നെ എന്താണ് ഉള്ളത് ആ അത് അതെന്നാൽ ഓക്കെ ആ അതും നല്ലൊരു ഐഡിയ അതെ ആയിക്കോട്ടെ മിസ് ആ അതും നല്ലൊരു ഐഡിയ അതെ അതെ ശരിയാണ് ടീച്ചറേ അത് നല്ലൊരു ഐഡിയ ആണ് നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മളെ അടിച്ചമർത്തിയത് എങ്ങനെയാണെന്നും അതിൽ നിന്നും നമ്മൾ എന്തോരം ഫ്രീഡം ഫൈറ്റ് അതെ ശരിയാണ് നമ്മൾ ഒരു പറയുന്ന പ്രസംഗത്തെക്കാളും ആ വളരെ എഫക്റ്റീവ് ആയിരിക്കും ഓക്കെ ടീച്ചറേ അത് ശരിയാണ് നല്ലൊരു ഐഡിയ ആണ് നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് നമുക്ക് ഇന്ന് അത് സ്കൂളിൽ വന്നു കഴിഞ്ഞിട്ട് മറ്റു ടീച്ചേഴ്സിനോടും നമ്മുടെ പ്രിൻസിപ്പളും ഒക്കെയായിട്ട് സംസാരിച്ചിട്ട് ഓക്കെ ആ ആ ആ ആ ആ നല്ലത് അതെ ആയിരിക്കും അത് എന്നാൽ ശരിയാണ് മുമ്പേ നടത്തിയെന്നാലും നമുക്ക് ആ ശരിയാണ് ടീച്ചറേ നല്ല ഐഡിയ ആണ് ഇതാണ് നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർ വരുമ്പോഴത്തേക്കാണ് ഇതിനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റിങ് ആയിട്ട് നമുക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ടീച്ചറിൻ്റെ ഐഡിയ എല്ലാം കൊളളാം നന്നായിട്ടുണ്ട് നമുക്ക് ഇന്ന് സ്കൂളിൽ വരുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം ഓക്കെ അത് പോവില്ല അതെ ശരിയാണ് നല്ല കാര്യം ടീച്ചറേ വളരെ നല്ല കാര്യം ഓക്കെ ശരി നമുക്ക് സ്കൂളിൽ വെച്ച് കാണാം ഓക്കെ